ആ ആരാണ് സംസ്

ശരി ശരി ശരി എന്ത് മീൻ എന്ത് മീൻ വേണ്ടിയാണ് എല്ലാ ഐറ്റങ്ങൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് തുണ്ടൻ കഷ്ണം മീൻ ഉണ്ട് സാധാരണ മീൻ ഉണ്ട് പൊടി മീൻ ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ആ ആ ദിവസവും മേടിക്കാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെ വെട്ടി വേണമല്ലോ അല്ലേ വെട്ടി ആ വെട്ടി വെട്ടി ഒക്കെ തന്ന് വിടാം അതിന് നമുക്ക് ദിവസവും മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ അതനുസരിച്ച് വണ്ടിയിൽ നമ്മൾ കൊടുത്ത് വിടാം പിന്നെ അവിടെ ഇവിടെയൊക്കെ വേറെ മീൻകാരോ ഒക്കെ ഉണ്ട് അവരെ മീൻ ഒരുത്തൻ്റെ വില അനുസരിച്ച് നിങ്ങൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോയേച്ച് വല്ലപ്പോഴും വന്ന് മേടിക്കുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടി ഒന്നും

വില എന്ന് വെച്ചാൽ മത്തി മത്തിക്ക് ഭയങ്കര വില അല്ലേ മത്തി മൂന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പതൊക്കെയാണ് ഇപ്പം പിന്നെ തിലോപ്പിയ എന്ന് പറഞ്ഞ സംഗതി അത് നല്ല ടേസ്റ്റ് ഉള്ള മീൻ ആണത് പക്ഷേ അത് വിലക്കുറവാണ് പിന്നെ പൊടി മീനൊക്കെ ആണെന്നുണ്ടെങ്കിലും നൂറ്റി നൂറ്റമ്പതിൽ താഴെ നിൽക്കും കൊച്ച് ഇത് കൊച്ച് മീനുകൾ

ആ അത് മതി മതി മതി മതി എന്നാൽ അപ്പം ഞാൻ അന്നപ്പം ഇട്ട് തരാം ഏതൊക്കെ മീനാണ് ഇവിടെ ഉള്ളതെന്ന് പൈസ ഗൂഗിൾ പേ ഇട്ടാൽ മതി

ഇപ്പോൾ ഇവിടെ നല്ല കരിമീൻ ഉണ്ടേ ആ അത് തിലോപ്പിയ മത്തി ഉണ്ട് പിന്നെ കഷ്ണം മീൻ ഉണ്ട് കേരയുടെ കഷ്ണങ്ങൾ വന്നിട്ടുണ്ട് കേര മുന്നൂറ്റി നാൽപ്പത് രൂപ കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അത് കഷ്ണങ്ങൾ തരുമ്പോഴത്തേനും അതിനൊരു പത്ത് രൂപയും കൂടി കൂടും കേര നല്ല മീൻ ആണ് ആ ഫ്രഷ് ആണ് ഫ്രഷ് ആണ് ആ നമ്മൽ കടപ്പുറത്തു നിന്ന് നേരിട്ട് കൊണ്ടുവരുന്നതല്ലേ

കഷ്ണം ആ കഷ്ണം കഷ്ണം ആക്കി കൊടുത്ത് വിടാം ആ ശരി

ആ ശരി ശരി ആ ശരി ശരി ഈ നമ്പർ ഈ നമ്പർ തന്നെ ഞാൻ ഇപ്പം വിളിക്കുന്ന ഈ നമ്പർ തന്നെ ഗൂഗിൾ പേ ഇടുന്നത് ശരി ഓക്കെ ഓക്കെ ഓക്കെ ബൈ